ഹലോ ഇത് ട്രാവൽ ഏജൻസ് അല്ലേ അതെ ഇപ്പോൾ എപ്പോൾ ഹായ് എനിക്ക് ആതിരപ്പള്ളിക്കും മലമ്പുഴയ്ക്കും എങ്ങനെയാണ് പാക്കേജ് വരുന്നതെന്ന് നോക്കണം ഞങ്ങൾ എട്ടു പേരുണ്ടാവും കുട്ടികൾ രണ്ടു പേർ എട്ടു പേർക്കുള്ള പാക്കേജ് ടെൻ ഡേയ്സ്

ആ അതോക്കെയാണ് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും പാക്കേജ് കൂടി എടുക്കാം ഓക്കേ ആ അത് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒക്കെയാണ് പ്രൊസീഡ് ചെയ്യാം അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തീരുമാനിക്കാം ആ ഓക്കെ